തീർച്ചയായും നമുക്ക് ഭയങ്കര പ്രഷർ തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വർഷത്തെ മുഴുവൻ ഇതും നമ്മളോട് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല അതേപോലെ തന്നെ എന്തോരം അവസ്ഥകൾ വന്നിട്ടുണ്ടെന്നറിയുമോ ശരിക്കും സങ്കടമായിട്ടുണ്ട് അവസാന നിമിഷമായിരിക്കും അവർ പറയുന്നത് നമ്മളോട് അത് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും ആ നിമിഷമായിരിക്കും നമ്മളെ ഏൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യണം വേറെ മാർഗ്ഗമില്ലയെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ജോലിക്ക് വരുന്നതെന്നുള്ള ചോദ്യം വന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ഒരു നിർവാഹമേ ഉള്ളു ആ വർക്ക് കമ്പ്ലീറ്റാക്കുകയെന്നുള്ളത് അത് എത്രയും നല്ല രീതിയിൽ കമ്പ്ലീറ്റാക്കാനാണ് നമ്മൾ നോക്കു കാരണം നമ്മുടെ പ്രൊഫെഷനലിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും അത് എനിക്ക് അങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പിന്നെ ഞാൻ വലിയ വലിയ വലിയ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല നമ്മൾ കുടുംബശ്രീ പിന്നെ പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളൊക്കെയാണ് പക്ഷെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് പോയ കാര്യം നമുക്ക് ലാസ്റ്റ് പണി വരുന്ന ഒത്തിരി കേസ് കെട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട് നമുക്ക് പ്രൊജക്ടല്ല പിന്നെ നമ്മുടെ അവിടെ ഉണ്ടായിരിക്കുന്ന നമ്മുടെ പിന്നെ മിനിട്സിലെയും കാര്യങ്ങളും കണക്ക് കാര്യങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് അവർ ചെയ്യിപ്പിക്കാറുണ്ട് ഓർക്ക് ഒന്നും ഇത്താക്കണ്ട നമ്മൾ നമ്മൾ ലാസ്റ്റ് ചെയ്യണം അവർ ആദ്യത്തെ പ്രസിഡൻറ്റ് സെക്രട്ടറി ഒന്നും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അതെനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് എഴുതി കണക്ക് എഴുതി കൊണ്ട് കൊടുക്കൽ നല്ല പാട് പെട്ടിട്ടുണ്ട് നമ്മൾ